യാത്ര എന്ന് പറയുന്നു മനുഷ്യനെ സംബന്ധിച്ചോളവും യാത്ര അവൻ അവനാ അവനുള്ളിൽ യാത്രചെയ്യാതെ എങ്ങും നമുക്കീ ലോകത്ത് ഒരു കാര്യങ്ങൾ പോലും നടക്കത്തില്ല അതൊരു സത്യമായുള്ളൊരു കാര്യമാണ് ഏതൊരു മനുഷ്യനാണേലും യാത്ര ഇവിടുന്ന് വീടിന് പുറത്തോട്ട് അടുത്ത ഒരു വീട്ടിലോട്ട് പോവാണേലും അതിന് യാത്രയെന്ന് തന്നെ പറയാൻ പറ്റുവുള്ളു അതുപോലെതന്നെ ടൗണില് എന്തെങ്കിലും മറ്റ് സ്ഥലങ്ങളില് ഒക്കെ പോവുമ്പോള് യാത്ര ചെയ്യുന്നതിനു വേണ്ടിയായിട്ട് നമ്മള് ഇപ്പോള് നടന്ന് പോകാവുന്ന യാത്രചെയ്യാവുന്നിടത്ത് നടന്നുപോവും അല്ലാത്ത സ്ഥലങ്ങളില് വാഹനങ്ങളെ നമ്മളാശ്രയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോള് സാമ്പത്തികമില്ലാത്തവർക്ക് ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ യാത്രാ ബസുകളെ ആശ്രയിക്കും ചിലർ സ്വന്തം വാഹനങ്ങളുപയോഗിച്ചവർ യാത്ര ചെയ്യുന്നു ചിലർ സ്ഥിരമായിട്ട് നമ്മള് യാത്ര ചെയ്യുമ്പൊഴെ അതിന് അങ്ങനെ വരുമ്പോള് അവര് ഇന്നത്തെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ചില മനുഷ്യര് അവര് സ്വന്തമായിട്ട് വാഹനം മേടിക്കുന്നതിന് വേണ്ടിആയിട്ട് ഇന്ന് പല വാഹന നിർമാതാക്കളും അങ്ങനെ ലോണായിട്ടും കാര്യങ്ങളുമായിട്ടും കൊടുക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോള് ഒര് ഒരുവർഷമോ അഞ്ചു വർഷമോ എടുക്കുന്ന യാത്രയുടെ യാത്രാക്കൂലി കൊണ്ട് ഈ പറഞ്ഞ പൈസ നമുക്ക് അടച്ച് തീർക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുമുണ്ട് സ്വന്തമായിട്ടൊരു വാഹനവുമുണ്ടാവും അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥിരം യാത്രയ്ക്ക് നമ്മള് അങ്ങനെ ബൈക്കുകള് കാറുകള് ഇങ്ങനെയൊക്കെ ലോണുള്ള ലോണുകളുപയോഗിച്ച് വാങ്ങാറുമുണ്ട് അതൊരു അസറ്റായിട്ടുപയോഗിക്കാറുമുണ്ട് ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളും ഉണ്ട് അല്ലാതെ നമ്മള് ഗെവണ്മെൻറ്റിനെ ആശ്രയിച്ച് ഗെവണ്മെന്റ് ബസ്സേ പോവുന്ന ആൾക്കാരുമുണ്ട് എല്ലാം രണ്ടും